ഹലോ ഹലോ ആ അതെ ആരാണ് ആ ഓ ഓ എന്താണ് മാഷേ ആ ഓ ആ ആ ഓ ആ ആ ഓ എത്ര പേർക്കുള്ളതാണ് ആ ആ അപ്പോൾ ടീച്ചേഴ്സും ഉണ്ടാവും അല്ലേ ടീച്ചേഴ്സിനാണ് ആ ഓ എന്താണ് പിന്നെ സാരിയോ ചുരിദാറോ ആ ആ ആ ആ ഷർട്ട് ആ ആ അത് മെറ്റീരിയൽ നിങ്ങൾ അത് കൊണ്ടുവരുവാണോ അതോ ഞാൻ എടുക്കുവാണോ വേണ്ടത് മെറ്റീരിയൽ ഏത് ഒരേ സെയിം കളർ ആണ് വരുന്നത് ഡ്രസ്സ് കോഡ് ആയിട്ടായിരിക്കും അല്ലേ ആ ഏത് കളർ ആണ് വേണ്ടത് എന്നുള്ളത് ആ ആ ആ ബ്ലാക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒന്നിച്ച് കിട്ടാൻ ചിലപ്പം പ്രയാസം ആയിരിക്കും ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ഒറ്റ ഒറ്റ കളറിലാവുമ്പോൾ പ്രശ്നമില്ല കിട്ടാൻ ആ പ്ലെയിൻ ബ്ലാക്ക് തന്നെ ആ ആ ആ ആ ഓ പിന്നെ അതിൻ്റെ അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെയൊന്ന് നിങ്ങൾ ഡീറ്റെയിൽ ഒന്ന് വിടണം വിടണം എങ്ങനെയാണ് എത്ര സൈസ് ആണെന്നൊക്കെ ഉള്ളത് മെഷർമെൻ്റ് കാര്യങ്ങൾ അതിനനുസരിച്ച് മെറ്റീരിയൽ എടുക്കണം അയ് ആ അതിന് കുറച്ച് ഒരു ഒരു ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്യുവേം വേണം കേട്ടോ നിങ്ങൾ ഓ ഓ കോട്ടൺ മെറ്റീരിയൽ ആണോ വേണ്ടത് അല്ലെങ്കിൽ ലിനെനിൽ ആണോ വേണ്ടത് ലിനെൻ കോട്ടനിലാണോ വേണ്ടത് കോട്ടൺ ആ ആ കൈത്തറി അങ്ങനത്തെ എന്തെങ്കിലും എടുക്കണോ അല്ലെങ്കിൽ ഹാൻഡ്ലൂം ആ ഓ ഓ ഓ കോട്ടൺ മതി അല്ലേ ഓ ആ ആ ഓക്കെ എന്നാൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എത്ര വരും എന്നുള്ളത് ഇത്രയും എടുക്കുമ്പോൾ എന്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ല മെറ്റീരിയൽ ഒന്നായിട്ടെടുക്കണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാണല്ലോ ഇവിടെ ഉള്ളത് ഓ അങ്ങനെ ആയിട്ട് ഇപ്പോൾ അതിനൊരു വാങ്ങാനുള്ള ഒരു അഡ്വാൻസ് ഇതിലേക്ക് ഈ കുറച്ച് പൈസ ഇങ്ങോട്ട് ഇടണം ഈ എന്റെ ഈ നമ്പറിൽ തന്നെയാണ് കേട്ടോ വാ പിന്നെ ഗൂഗിൾ പേ ഉള്ളത് ഓ ഓ എ ഓരോറ്റ്ങ്ങളെ സൈസും അപ്പോൾ അതിനനുസരിച്ചാണല്ലോ മെറ്റീരിയൽ എടുക്കാൻ പറ്റുള്ളൂ ആ ഓ ഓ ഓ ഓ ഞാനങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് അയച്ചുതരാം അതിന്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അതിന് ശേഷം ഓക്കെ